ഞാൻ ഒരു ഷെയർ മാർക്കറ്റിൽ കൂടിയായിരുന്നു അതിന് കുറച്ചേറെ പൈസ എൻ്റെ കയ്യില്നിന്നും അവര് അടിച്ചുമാറ്റി എന്നിട്ട് വലിയ തുക തരാം വലിയ തുക തരാവെന്നും പറഞ്ഞാണ് ഒരു ആറു ലക്ഷം രൂപയോളം എൻ്റെ കയ്യിൽനിന്നും അവര് വേടിച്ചു പക്ഷെ തിരിച്ചുചോദിച്ചപ്പോള് അവരുടെ നമ്പരും ഇല്ല അവരുടെ ഒരു ഐഡൻറ്റിക്കേഷനും നമ്മുടെ കയ്യിൽ കിട്ടിയിട്ടില്ല അപ്പോള് ആ പൈസ അങ്ങനെതന്നെ പോയി അതുകൊണ്ട് ഷെയർ മാർക്കറ്റെന്നു പറയുന്നത് അറിഞ്ഞോ അറിയാതെയോ ഷെയർ മാർക്കറ്റിൽ ഇനി ഉള്ളവർക്കെങ്കിലും ഒന്നും സംഭവിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ പറയുന്നെ എൻ്റെ അവസ്ഥ ഇതാണെ ആറു ലക്ഷം രൂപയോളം ഷെയർ മാർക്കറ്റിൽ പോയി എൻ്റെ പൈസ നഷ്ടപ്പെട്ടു പോയി ഇനി ആരും അതിനകത്തിൽ പെടാതെ ഇരിക്കുക അതാണ് ഇതിനകത്തിൽ വലിയ എന്തോ ഒന്ന്